ഞാനിന്നലെ ഓണ്ലൈനിൽ ഒരു ഹെയര് ഓയിൽ ഓര്ഡര് ചെയ്തിട്ടുണ്ടായിരുന്നു അതെനിക്കിന്നലെ കിട്ടി അപ്പോൾ നല്ല അതിന്റെ റിവ്യൂ എല്ലാം കണ്ടപ്പോൾ നല്ലൊരു പ്രോഡക്റ്റായിട്ട് നല്ലൊരു പ്രോഡക്റ്റാണ് ഞാനിത് വാ മേ കയ്യിലെത്തികഴിഞ്ഞപ്പോൾ അതിന്റെ ആ ഹെയറോയിലിന്റെ സ്മെല്ലോക്കെ അടിപൊളിയാണ് അപ്പോൾ അതിനകത്ത് മുടികൊഴിച്ചിൽ മാറുമെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഒന്ന് നല്ലവണ്ണം ഹെയറിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഇതായി കഴിഞ്ഞാൽ ഒരു രണ്ടു ദിവസം കഴിയുമ്പം തന്നെ അതിന്റെ റിസള്ട്ട് കാണാന് പറ്റുമെന്നാണ് പറയുന്നതപ്പോൾ ഞാനത് രണ്ടു ദിവസം ചെയ്ത് നോക്കിയായിരുന്നു അപ്പോൾ നല്ലൊരു മാറ്റമാണ് ഉള്ളത് അപ്പോൾ എന്താപറയുക എല്ലാവരും ഈയൊരു ഹെയർ ഓയിൽ വാങ്ങിക്ക് വാങ്ങിക്കണമെന്നാണ് എന്റെ അഭിപ്രായം അപ്പോൾ നല്ല നല്ല ന്ന എന്താ പറയുക നല്ല വെളിച്ചെണ്ണേന്റെ മണം ആ കാച്ചിയ എണ്ണേന്റെ മണം നല്ലൊരു നല്ലൊരു ഇതായിട്ടുണ്ട് അപ്പോൾ അതൊരു എന്താ പറയുക എല്ലാവരും അത് വാങ്ങിച്ച് തേക്കുക അപ്പോൾ ഹെയര് എന്താ പറയുക കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു എണ്ണയാണ് ആ ഹെയര് ഓയിൽ